ഹലോ വിൽട്ടണല്ലേ അപ്പോൾ ഞാൻ നേരത്തേ ഒരു ഓർഡറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക്കൂടി ആഡ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്വീറ്റ് ഐറ്റംസ് ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് അത് സ്പെഷ്യൽ ആണെങ്കിൽ നന്നായിരിക്കും ആ ഓക്കേ കേക്ക് വാൻചോ ഉണ്ടോ റെഡ് വാഞ്ചോയും ബ്ലാക്ക് വാഞ്ചോയും വൺ കെ ജി വേണമായിരുന്നു അതിൽ വിഷസ്സ് എഴുതണം ഹാപ്പി ബർത്ത്ഡേ എന്നും ഹാപ്പി ആനിവേഴ്സറിയും പിന്നേ ഐസ് ക്രീമ് ഒ ഓക്കേ ചിക്കൂ മാങ്കോ വാനില സ്റ്റോബറി ടെൻഡർ കോക്കോനട്ട് വൺ കെ ജി വച്ചിട്ട് വേണം പിന്നെ അതുപോലെ ഡെസ്സേർട്ട് ഓ പേസ്ട്രീസ് ഉണ്ടല്ലേ അപ്പോൾ എല്ലാ വെറൈറ്റി ഒരു രണ്ടു പീസ് വച്ച് അയച്ചോളൂ ഡോണറ്റ്സോ അങ്ങനെയെന്തെങ്കിലും ആ ഓക്കേ ജിലേബി വൺ കെ ജി ഹൽവ വൺ കെ ജി ടെൻ്റർ കോക്കനട്ട് ലഡ്ഡു വേണം മഞ്ഞയും ഓറഞ്ചും ഓക്കേ ഇത്രയും മതി താങ്ക് യു